കൂടിയാട്ടം ഓട്ടംതുള്ളൽ കഥകളി കുച്ചിപ്പുടി ഭരതനാട്യം മാർഗംകളി കോലുകളി കൈകൊട്ടിക്കളി എങ്ങനെ വ്യത്യസ്തമായ കലകൾ നമ്മുടെ നാട്ടിലുണ്ട് പുതിയ തലമുറയ്ക്ക് കലകളോട് അധികം ആഭിമുഖ്യമില്ല പരമ്പരാഗതമായി തുടരുന്ന കലകളെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യംനിന്ന് പോകാതെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് കൃത്യമായി ഭരണാധികാരികൾ മുൻകൈ എടുത്ത് നമ്മുടെ നാടിൻ്റെ തനിമ നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്